യാ ഗുഡ് മോർണിംഗ് സാർ ആ സാർ എനിക്ക് എൻ്റെ വണ്ടി ഒന്ന് ക്ലയിം ചെയ്യണമായിരുന്നു ആ ഇന്നലെ വന്ന് ഓക്കെ താങ്ക് യു സാർ ഓക്കെ സാർ ഇന്നലെ ഞാൻ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് വണ്ടി ഒന്ന് പോസ്റ്റ് തട്ടി അപ്പോൾ വണ്ടിക്ക് ചെറിയ ഒരു പണി വന്നു അപ്പോൾ എനിക്ക് വണ്ടി ഒന്ന് ക്ലയിം ചെയ്യണമായിരുന്നു അതെ സാർ പോസ്റ്റി തന്നെ ആണ് തട്ടിയത് അല്ല അത് കുറച്ച് കൂടുതൽ ഉണ്ട് പണി അപ്പോൾ ഞാൻ കരുതി ആ ക്ലയിം തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു ഓക്കെ ഇതാ ഇൻഷുറൻസ് പിന്നെ ആർ സി ബുക്ക് അതെ അതെ എൻ്റെ പേരിൽ ഉള്ള വണ്ടി തന്നെ ആണ് ഓക്കെ ഇതാ ആധാർ കാർഡ് ലൈസൻസ് അതാ ഇതാ ലൈസൻസ് യോ അത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു എക്സ്പെയർ ആയതെന്ന് ഞാൻ ഞാൻ ഡേറ്റ് നോക്കിയിട്ടില്ലായിരുന്നു ലൈസൻസിലെ അറിയാം പത്ത് വർഷമേ വാലിഡിറ്റി ഉള്ളൂ എന്ന് പക്ഷെ അത് കഴിഞ്ഞ മാസം കഴിഞ്ഞു പോയത് ശ്രദ്ധിച്ചില്ല സാർ ഞാൻ ആ ഒരു ധൃതിയിലും ആ ഒരു ടെൻഷനിലും ഞാൻ പെട്ടെന്ന് ഇങ്ങ് കൊണ്ട് വന്നതാണ് ഞാൻ അത് അറിഞ്ഞില്ല എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇനി ഇത് ഇപ്പോൾ ഇത് ആ അറിയാം സാർ പക്ഷെ ഞാൻ അത് വിട്ട് പോയ കാര്യമാണ് അല്ലാതെ ഞാൻ മനപ്പൂർവ്വം അല്ല അല്ലെങ്കിൽ മനപ്പൂർവ്വം ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ക്ലെയിമിനായിട്ട് ഞാൻ എൻ്റെ എല്ലാ ഡോക്യൂമെൻറ്റ്സും ആയിട്ട് വരുമോ ആ സാർ മനസ്സിലായി ആ സാർ അറിയാം പക്ഷെ ഇപ്പോൾ എന്തെങ്കിലും ഒരു വഴി അയ്യോ സാർ ഇത്ര ഇത്തരം കാര്യങ്ങൾ ഒന്നും സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു സോറി

ആ ഓക്കെ സാർ അപ്പോൾ ഞാൻ ആദ്യം ലൈസൻസ് റിന്യൂ ചെയ്തിട്ട് രണ്ടാമത് ആപ്ലിക്കേഷൻ കൊടുത്ത് നോക്കാം ക്ലെയിം ചെയ്യാനായിട്ട് ഓക്കെ സാർ അപ്പോൾ ഞാൻ ഇത് ലൈസൻസ് റിന്യൂ ചെയ്തിട്ട് ഞാൻ വീണ്ടും വരാം ഓക്കെ